സാർ സാറെനിക്ക് മലേഷ്യയില് വെച്ച് നടക്കുന്ന സാംസ്കാരികവിനിമയപരിപാടിയിലേക്ക് നമ്മുടെ കോളേജിനെ പ്രതിനിധീകരിച്ച് എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ട് സാർ ഇതൊരു വലിയൊരു പ്രോഗ്രാമാണ് സാർ ഒരു വലിയൊരു സാംസ്കാരികവിനിമയപ്പരിപാടിയാണ് സാർ നമ്മുടെ നമ്മുടെ ഈ കോളേജിൽ നിന്ന് ഞാൻ മാത്രമാണ് പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പത്ത് കുട്ടികളിൽ ഒരാളാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാർ ഞാൻ പാസ്പോട്ടിന് അപ്പ്ളെ ചെയ്തായിരുന്നു സാർ പാസ്പോട്ട് അപ്പ്ളൈ ചെയ്തിട്ട് ഞാൻ ഒരു പത്ത് ദിവസം വെയ്റ്റെയ്തു സാര് എൻ്റെ ഡെയ്റ്റ് പത്ത് ദിവസം കഴിഞ്ഞാരുന്നു എനിക്ക് പാസ്പ്പോട്ട് സേവാകേന്ദ്രത്തിൽ വെച്ചുള്ളൊരിൻ്റർവ്യു ഉണ്ടായിരുന്നു സാർ അതിൽ ഞാനെൻ്റെ പത്താം ക്ലാസിൽ സർട്ടിഫിക്കറ്റും പ്ലെസ് റ്റുവിലെ സർട്ടിഫിക്കറ്റും എൻ്റെ ഡിഗ്രിയിലെ സർട്ടിഫിക്കറ്റും ഞാനെല്ലാം അവടെക്കാണിച്ചു എൻ്റെ ഐ ഡി പ്രൂഫ് കാണിച്ചു എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ ഞാൻ ഈ പ്രോഗ്രാമിൽ പോവുമെന്ന് ഞാനൊട്ടും വിചാരിച്ചതേ ഇല്ല സാർ അയാം വെരി എക്സൈറ്റഡ് സാർ എന്ത് പറയണമെന്നെനിക്കറിയത്തില്ല സാറിനോടീക്കാര്യം വന്ന് എനിക്ക് പാറയണമെന്ന് തോന്നി സാറാണെനിക്ക് ഇതിന് വേണ്ട ഫുൾ സപ്പോട്ട് തന്നത് താങ്ക് യു സോ മച്ച് സാർ